ഹലോ ഹലോ ആ എന്തായിരുന്നു പേര് അതെ അതെ അതെ ആ പേരെന്തായിരുന്നു ആ ആ എന്താ എന്ത് വർക്കാണ് ചെയ്യുന്നത് ആ ഓക്കെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ആ ഓക്കെ ഓക്കെ എന്താണ് എന്താണ് ശരിക്കും എന്താണ് തലവേദനയോ ഓക്കെ ഓക്കെ മെഡിറ്റേഷൻ അങ്ങനെയെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല അല്ലേ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസെന്തെങ്കിലുമുണ്ടോ ആണോ അപ്പം കണ്ണ് അതിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്തതായിരുന്നോ ആ എവിടെയാണ് കാണിക്കുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആണോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ വേറെ വേറെ അല്ലാണ്ട് ഹെൽത്ത് ഇഷ്യൂസോ വൊമിറ്റിങ്ങോ അങ്ങനെയെന്തങ്കിലും

ഓക്കെ ഓക്കെ മെഡിറ്റേഷനും യോഗയൊന്നും ഇന്നേവരെ ചെയ്തിട്ടില്ല

ഓക്കെ ഓക്കെ നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് അങ്ങനത്തേതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക ആ അതിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെച്ചിട്ട് യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ കിട്ടും അപ്പം ആ അപ്പം ഒന്നും കൂടി വർക്കിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ആ അപ്പോൾ കുറച്ചും കൂടി എന്താണ് അല്ല വർക്ക് മാത്രം അല്ലാണ്ട് അതിൽ നിന്ന് കുറച്ച് ഫ്രീ ടൈം എടുത്തിട്ട് നമ്മൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യുക അല്ലാണ്ട് ഓക്കെ അല്ലാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുംകൂടി നമുക്ക് കൺട്രോൾ ചെയ്തു വരും ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ മതി മതി ശരിയെന്നാൽ